എൻ്റെ കഴിവ് എന്താണെണ് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ഡ്രോയിങ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്പം തൊട്ടേ കുഞ്ഞുന്നാൾ മുതലേ ഞങ്ങൾ അങ്ങനെ ഓരോ പൂവിൻ്റെയും അച്ഛനേയും അമ്മയേയും അങ്ങനെ എല്ലാം വരയ്ക്കുമായിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി ഓ വലുതായാൽ ചിലപ്പോൾ മേയ് ബി ആയാലോ ഒരു കലാകാരൻ എന്ന രീതിയിൽ ആയാലോ എന്ന് അവർക്ക് തോന്നിട്ടുണ്ട് കാരണം ഞാനും ചെറുപ്പത്തിലെ പിന്നെ എല്ലാ സ്കൂളിൽ എല്ലാ പരിപാടികൾക്കും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്സിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പോയി പങ്കെടുക്കും എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറുപ്പം മുതലേ അതിനെ അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്നുതന്നെ പറയാം നല്ല നന്നായിട്ട് എനിക്ക് എനിക്ക് അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു കരിയർ തന്നെ ചൂസ് ചെയ്തതതെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ ആൾക്കാരേയും ഞാൻ വരയ്ക്കുമായിരുന്നു ഓരോ ഓരോ ആൾക്കാരെ ആയാലും എന്തായാലും മല പുഴ അവിടെ നിന്ന് ഒഴുകി വരുന്ന എന്തെങ്കിലും ആയാലും ഞാനങ്ങനെ വരച്ചൊക്കെ കൊടുക്കുമായിരുന്നു നേരത്തെയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഓരോ കമ്പനി ഇങ്ങനെ വർക്കിന് വേണ്ടി വിളിച്ചുവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി ചെയ്തു കൊടുക്കാറൊക്കെയുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരേയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഈ വരയ്ക്കാൻ ആർട്ടിസ്റ്റ് എന്നൊരു പേര് ഉണ്ടാക്കണം എന്നൊരു എന്നൊരാഗ്രഹമായിരുന്നു ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരച്ചു തരാൻ വേണ്ടി പറഞ്ഞുവെന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാം വരച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ആഗ്രഹം പിന്നെ വേറെ എന്റെ ഉള്ളിൽ ആഗ്രഹം ഞാൻ പാട്ടു പാടുമായിരുന്നു ചെറുപ്പം മുതലേ പാട്ടു പാടാൻ തുടങ്ങി അതിന് കുറച്ച് കുറച്ചെന്നു പറഞ്ഞാൽ കുറച്ചു കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്താരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പാട്ട് പഠിച്ചേനെ പക്ഷേ ഞാൻ അന്ന് തന്നെ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ആ ഒരു അതിന്റെ ഇൻട്രസ്റ്റ് പോയതോടെ പിന്നെ ഞാൻ പാടാൻ അങ്ങനെയൊന്നും നിന്നില്ല പക്ഷേ കൂടുതൽ എനിക്ക് ഇഷ്ടം എന്നു പറയുകയാണെങ്കിൽ ഡ്രോയിങ്സ് തന്നെയാണ്